ഹലോ സർ ഞാന് എനിക്കൊരു ഗോൾഡ് ലോണ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു

അഞ്ച് പവൻ ഉണ്ട് ഇപ്പോൾ ഗ്രാമിന് എത്ര എമൗണ്ട് കിട്ടുന്നത് പവന് മുപ്പത്തി ഏഴ് ഇരുന്നൂറാ അ അപ്പോൾ നമക്കൊരു അഞ്ച് പവൻ ഒന്നിച്ച് വെക്കുമ്പോൾ മാക്സിമം എത്ര ചെയ്ത് തരാൻ പറ്റും അതൊരൂ മൂന്നാക്കിയിട്ട് ചെയ്ത് തരാൻ പറ്റുമോ നമുക്കൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നികുതി നികുതി ചീട്ട് വീട്ടില് ഉമ്മാൻ്റെ പേരിലാണ് ഉള്ളത് അത് പറ്റുമോ അ അ അ ആ അത് ഗോൾഡ് അഞ്ച് പവനേ ഉള്ളു അപ്പോൾ മാക്സിമം നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് എമൗണ്ട് വേണമായിരുന്നു അപ്പോൾ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മള് ഇതിന് വരുമ്പോൾ വേറെ എന്തേലും ഒക്കെ ഈട് കൊണ്ടുവരേണ്ടത് ഉണ്ടോ ഐ ഡി കാർഡോ അങ്ങനെ എന്തേലുമൊക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ സർ പിന്നേ നാളെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലോണ് ശരിയാക്കി കിട്ടുമോ

ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ നമ്മള് എന്നാൽ ആ ആയിക്കോട്ടെ നാളെ രവിലെ പത്ത് മണി ആകുമ്പോൾ വരാം അപ്പോൾ ഉമ്മാനേയും കൂടെ കൂട്ടണം അല്ലെ ആ ഓക്കെ